ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സാഹസികകരമായിട്ടുള്ള മല കയറ്റമെന്നൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ കൂടുതൽ പറയുകയാണെ വായനാട്ടിൽ ചെയ്തത് തന്നെയാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് വയനാട്ടിൽ ഞാൻ രണ്ട് മെയ്നായിട്ട് തോന്നുമ്പോൾ എനിക്ക് രണ്ട് തരത്തിലുള്ള ഇതാണ് ഓർമ്മ വരുന്നത് ഒന്നേ മുട്ടിൽ ആ ഭാഗത്തുള്ള ആ എന്താ പറയുക ഒരു മുട്ടിൽ മാണ്ടാട് എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊരു മലയുണ്ട് എന്താ മണിക്കുന്ന് മലയെന്നങ്ങാണ്ടാണ് അതിൻ്റെ പേര് അത് എന്താ പറയുക ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മൾ ഹില്ലിൽ ടോപ്പിൽ കയറണം അപ്പോൾ അത് എന്താ പറയുക റിയലി എന്താ പറയുക ഒരു സ്ട്രൈക്കിങ് ആയിട്ടുള്ള ഇത് തന്നെയാണ് നമ്മൾ അതിൻ്റെ മോ ടോപ്പിലെത്തുമ്പോൾ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെയെന്ന് പറയുമ്പോൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് നമ്മൾ നോക്കുമ്പോൾ എന്താ അവിടെ പറയുക കുറേ എന്താ പറയുക ട്രക്കിങ്ങ് പോലെ കുറേ നടന്ന് കയറാനൊക്കെയുണ്ട് അടിപൊളിയൊരു സ്പോട്ട് തന്നെയാണത് പറയാതിരിക്കാൻ പറ്റ് പറ്റില്ല ആ അപ്പോൾ അതിൻ്റെ ടോപ്പിലെത്തുമ്പം നമുക്ക് കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ നമ്മൾ നടന്ന് നടന്ന് എന്താ പറയുക ഒരു പാട് ദൂരം നടന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ മടുത്തൊക്കെ പോകും കുറേ വെള്ളമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നാലും കുഴപ്പമായില്ല നടന്ന് കയറിക്കഴിഞ്ഞാൽ അവടെയുള്ള വ്യൂവും കാര്യങ്ങളുമൊക്കെ കണ്ട് കഴിയുമ്പം നമുക്കാ മടുപ്പൊന്നും തോന്നില്ല പിന്നെ അതുപോലെ തന്നെയാണെനിക്ക് ചെമ്പ്ര പീക്കും അവിടെ അടിപൊളിയൊരു വ്യൂവും കാര്യങ്ങളുമൊക്കെയാണുള്ളത് അതിൻ്റെ മുകളിലൊരു ഹാർട്ട് ഷേപ്പിലൊരു ലേക്കും കാര്യങ്ങളൊക്കെയുണ്ട് ഞാനത് രണ്ടുമാണ് മെയ്നായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് അവിടെയാണ് എനിക്ക് കൂടുതലും പോകാൻ താത്പര്യം തോന്നിയിട്ടുള്ളത്